ഹലോ ഞാൻ കഴിഞ്ഞ ആഴ്ച ഫ്ലിപ്പ്കാർട്ടിന്നൊരു സാധനം ആറ് ഇത് വരുന്ന പിന്നെ ഗ്ലാസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻൽ എനിക്ക് അതാ സാധനം നിങ്ങൾ കൃത്യ സമയത്ത് തന്നെ എത്തിക്കേം ചെയ്തു പക്ഷേ അത് പാക്കേജിൻ്റെ ഇത് കൊണ്ട് പാക്കേജ് നല്ല രീതിയിലുള്ള പാക്കേജല്ലായിരുന്നു കട്ടിയുള്ള പൊട്ടുന്ന സാധനമാണ് അപ്പം അതനുസരിച്ചുള്ള പാക്കിങ്ങല്ലാത്തോണ്ട് ഞങ്ങൾ പായ് പായ്ക്കെ ചെയ്തു വന്ന സാധനം പൊട്ടിച്ചപ്പോൾ ആറ് ഗ്ലാസിന് പകരം പന്ത്രണ്ട് ഗ്ലാസ് കഷ്ണമായിട്ടുണ്ടായിരുന്നു അത് കൊണ്ട് അത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന പിഴയാണ് എനിക്ക് അതുകൊണ്ട് റീഫണ്ട് കിട്ടിയേ പറ്റുവൊള്ളൂ എത്രയും പെട്ടന്ന് എനിക്ക് റീഫണ്ട് ചെയ്യണം എനിക്ക് സാധനം എല്ലാം പൊട്ടി തരിപ്പണമായിട്ടാണ് കിട്ടിയത് അതുകൊണ്ട് റീഫണ്ട് കിട്ടിയെ തീരുള്ളു